സ്കൂളിലെ നൃത്തപരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചെങ്കി പങ്കെടുത്തിട്ടില്ല പക്ഷെ കണ്ടിട്ടുണ്ട് എപ്പോഴെന്ന് വച്ചെങ്കിൽ സ്കൂളിലത്തെ പെരിപാടീടാമ്പൊ ഒപ്പനയാണ് കണ്ടത് ഒപ്പന എന്ന് പറഞ്ഞെങ്കിൽ ഒരു വെറൈറ്റിയാണ് അത് അധികം മുസ്ലിംസ്സാണ് കളിക്കാറ് പക്ഷേ ഹിന്ദുകളും കളിക്കലുണ്ട് ഒപ്പന എന്ന് പറഞ്ഞെങ്കിൽ അധികം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്താണെന്ന് വച്ചെങ്കിൽ അതിലുള്ള ആൾക്കാറും പിന്നെ ഒരു മണവാട്ടി ആയിട്ട് തന്നെ ഒരാൾ ഫ്രണ്ടിൽ നിർത്തിക്കണം ഓറും എല്ലാറാമ്പൊ ഒരു വേറെ തന്നെയാണ് വേറെ തന്നെ എന്തില് ഞാൻ പത്താം ക്ലാസ്സിൻ പടിക്കുമ്പക്ക് നമ്മളെ സ്കൂളിൽ കലോൽസവം ഉണ്ടായിന് അപ്പം അവിടത്തേക്ക് പോയിട്ടാകുമ്പോൾ കണ്ടത് ഫസ്റ്റ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല സംഭവം ഞാൻ ആക്ക് നേരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ആൾക്കാരെല്ലാം ആയത്കൊണ്ട് ബാക്കിൽ ഇരുന്നിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് നേരെ കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ബയ്യെ ബയ്യെ നല്ല പാങ്ങുണ്ടായിന് ആ മണവാട്ടിൻ്റെ ഒരു ഒരു നാണവും സ്കൂളിൽ മാത്രമല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇപ്പോൾ മങ്ങലത്തിൻ്റെ ആയെങ്കിലും നല്ല പാങ്ങ്ണ്ട്ന്ന് അത് കാണാൻ മങ്ങലത്തിൻ്റെ ഒപ്പരല്ലെങ്കിൽ വേറെ വെറൈറ്റി ആയിട്ടാണ് ഇത് ഒക്കെ ഒപ്പന എന്ന് പറയുന്നത് ഒരു കലാ സാഹിത്യം തന്നെയാണ് എല്ലാവരും ഏകദേശം ആൾക്കാറും കളി ഏകദേശ പ്രോഗ്രാമിലും എവിടെ ആണെങ്കിലും ഈ ഒപ്പന ഉണ്ടാവാറുണ്ട് ഇപ്പോൾ സ്കൂളിലത്തെ കലോൽസവം ഇല്ലെ ആ കലോൽസവത്തിനാണെങ്കിലും ഒപ്പന ഒരു വേദിയിൽ വേറെ തന്നെ ഉണ്ടാകുന്നുണ്ട് ഒപ്പനയിൽ എന്ന് പറയുന്നത് ആൾക്കാരാണ് ആറും ആറിൽ കൂടുതൽ ആൾ ആറും ആറിൽ കൂടുതൽ ആൾക്കാരാണ് ഒപ്പനയിൽ ഉണ്ടാകുന്നത് ഇതെങ്ങനെ എന്ന് വച്ചെങ്കിൽ എല്ലാവരും റൗണ്ടായിട്ട് നിൽക്കും ഈ ആറാൾക്കാരാണ് മിനിമം ഒരാൾക്ക് ആറ് ആൾക്കാരാണ് നാലാൾക്കാരെ കൊണ്ടും കളിക്കാൻ കഴിയും പക്ഷെ ആൾക്കാർ ആറാണ് ഏകദേശം ആൾക്കാരും കളിക്കൽ ആറ് ആൾക്കാരാണ് നടുവിൽ ഒരു പുതുനാരി ഉണ്ടാകും അവരുടെ ഡ്രെസ്സ് എന്ന് പറയുന്നത് ഒരു പാവാടയും വൈറ്റ് വെള്ള ക്കളർ പാവടയും വെള്ളക്കളർ ബ്ലൗസ്സാണ് പിന്നെ കുറേ ഫാൻസി ഫാൻസി ആഭരണങ്ങളൊണ്ടാന്ന് വള ഒണ്ടാന്ന് എല്ലാം വാടകക്കാണ് എടിക്കുന്നത് ശരിക്കാരും എടുക്കാറില്ല കാരണം അത് ഒരിക്കൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ കുറെ കഴിഞ്ഞെങ്കിലും അത് ആരും ഇടലില്ല അതുകൊണ്ട് ഏകദേശം ആൾക്കാറും വാടകക്ക് തന്നെ എടുക്കൽ പിന്നെ നിറച്ചും കൈയ്യിൽ ഫുള്ളും മൈലാഞ്ചിയെല്ലാം വച്ചിട്ട് എല്ലാവരും നാല് ആൾക്കാരും കൈമുട്ടിയിട്ടാണ് അതിൽ മൂന്ന് ആൾക്കാർ വേറെ പാട്ട് പാടാൻ തന്നെ ആൾക്കാർ മൂന്നാൾക്കാറ് സെയ്ഡ് നിൽക്കുന്നുണ്ടാവും ബാക്കി എല്ലാ ആൾക്കാരും പാട്ടിനൊത്തിട്ട് കളിക്കലാണ് ഒപ്പന കളിക്കുന്നതാണ് ഇത് എന്ന് പറയുന്നത് ഏകദേശം ആൾക്കാർക്കും ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് ഒപ്പനയ്ക്ക് ഒരിക്കൽ കൂടിയിട്ടുണ്ടായിന്ന് പക്ഷേ എനിക്ക് കളിക്കാൻ അറിയില്ല നേരെ അതുകൊണ്ടെ് എന്നെ പുറത്താക്കി അറിയാത്തത് കൊണ്ട് തന്നെ പുറത്താക്കിയത് ഇത് കഴിയ എന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴ്യ്യാടെ എന്നിട്ട് ഞാൻ എല്ലാവരെതും ഒപ്പന നോക്കാൻ പോകലുണ്ട് പക്ഷെ പുത്നാട്ടീ എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അത് ഒരു ദിവസം മുന്നേ കൈയ്യിൽ ഫുള്ള് മൊയ്ലാഞ്ചി എല്ലാം വയ്ക്കും നാല്സം രണ്ട് കൈയ്യിലും കാലിലുമെല്ലാം മൈലാഞ്ചി വച്ചിട്ട് എല്ലാവരും കൂട്ടത്തോടെ ഇരുന്നിട്ട് കഥ പറഞ്ഞു കൊണ്ടും ഭക്ഷണം വായിലേക്ക് ഇട്ടു കൊണ്ടെല്ലാം മൈലാഞ്ചി വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസം ആണ് പുതുനാട്ടിൻ്റെ ഡ്രെസ്സ് എന്ന് പറയുന്നത് ഈ വെളുത്ത കളറ് മുണ്ടും ബ്ലൗസ് ഒന്നുമല്ല വേറെ തന്നെയാണ് ഒന്നെങ്കിൽ സാരി ഉടുക്കും ഇല്ലെങ്കിൽ വേറെ പച്ച കളറോ ചുവന്ന കളറോ മറ്റം പാവാടയും ബ്ലൗസ്സുമായിരിക്കും പിന്നെ ഫുള്ളും പൊന്ന് പൊന്നല്ല ഫാൻസി ആയിരിക്കും എല്ലാ ഫാൻസികൾ ഫാൻസിയും ഉണ്ടാകും ഗോൾഡ് കളർ തന്നെയാണ് കേട്ടത് അധികം എല്ലാവരും നല്ല എല്ലാവരും ഇടുന്നത് പിന്നെ ഇവർ എല്ലാവരും കളിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഓരോരോ അറബി സോങ്ങും അറബി ആൽബവും അങ്ങനെയെല്ലാം കണ്ടതാണ് അറബി സോങ്ങ് അറബി ആൽബത്തിലത്തെ സോങ്ങെല്ലാം ഉണ്ടാകുന്നില്ലെ അതെല്ലാമാണ് അവർ പാട്ടായിട്ട് വയ്ക്കുന്നത് പണ്ട് പണ്ട് ആൾക്കാർ പണ്ട് പണ്ടേയുള്ള കലാരൂപമാണ് ഒപ്പന എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് വളരെ ഗംഭീരമായിട്ടാണ് കളിക്കുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ കുറച്ചാൾക്കാരും ആഡംബരം കുറച്ച് ഇപ്പം ആഡംബരം കൂട്ടിയിട്ടും ആൾക്കാരെല്ലാം കുറവായിട്ടാണ് ഇപ്പം കളിക്കുന്നത് പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞെങ്കിൽ ഒരു പാട്ട് തന്നെ എല്ലാ ദിവസവും പാടിപ്പാടി അത് തന്നെ പാടും പക്ഷേ എന്ത് പ്രോബ്ലം എന്ന് വച്ചെങ്കിൽ ഇതിപ്പം ഇന്ന് കളിച്ചെങ്കിൽ തന്നെ നാളെ സൗണ്ട് ഒന്നും ഉണ്ടാകില്ല ഈ ഒപ്പന കളിച്ചിട്ട് കൈ കൈ വേദന കാല് വേദന തൊണ്ട നൊമ്പലെല്ലാം ബയങ്കര കുറേ അസുഖങ്ങളാണ് വരുന്നത് തെറ്റല്ല സംഭവം പിറ്റേ ദിവസം ഉണ്ടാകുന്ന ആ ഒരു പെയിന് അത് കഴിഞ്ഞെങ്കിൽ പിന്നെ എല്ലാം അത് പിന്നെ മാറും പക്ഷെ ഇത് എല്ലാ വേദിയിലും കാണുന്ന ഒന്നാണ് കലോൽസവത്തിനെല്ലാം വേറെ ആണ് കലോൽസവത്തിനെല്ലാം വെറൈറ്റി ആയിട്ടാണ് കളിക്കുന്നത് എല്ലാവരും കളിക്കുന്ന ഒന്നാണ് പ്പ എല്ലാവരുടെയും ചെറുപ്പത്തിലെ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾ ആയിട്ടാണ് കളിക്കുന്നത് പക്ഷെ വലുതാവുമ്പം വലുതാവുമ്പൊഴേക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് കളിക്കുന്നതാണ് നേരെ നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർക്ക് മാർക്കുണ്ട് മാർക്കുണ്ട് പിന്നെ അധികം മുസ്ലിംസ തന്നെയാണ് കളിക്കാറ് മുസ്ലിംസിൻ്റെ കലാരൂപമായിട്ട് തന്നെയാണ് ഈ ഒപ്പന തിരഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ കാണുന്നത് നൃത്തമാണ് നൃത്തം എല്ലാവർക്കും കാണുന്ന ഒന്നാണ് നൃത്തം എന്ന് പറയുന്നത് നാല് നൃത്തം ചെയ്യുന്നത് കുറെ ആൾക്കാറില്ല ഒരാൾക്ക് ഒരാളായിട്ടാണ് കളി കാണുന്നത് എല്ലാ കലോൽസവത്തിനെല്ലാം ഒരാൾ ഒരാളായിട്ടാണ് ഈ നൃത്തം കളിക്കുന്നത് എപ്പോൾ യൂത്ത് ഫെസ്റ്റിവല്ലിനെല്ലാം നൃത്തത്തിൽ മത്സരമാണ് എല്ലാം ഫെസ്റ്റ് സെക്കൻഡ് തേഡെല്ലാമായിട്ടുള്ള മത്സരമാണ് നൃത്തം എന്ന് പറയുന്നത് പിന്നെ പിന്നെ കാണുന്ന പരിപാടികൾ ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെ അങ്ങനത്തെ എല്ലാം പക്ഷെ ഞാൻ കണ്ടത് മാത്രമാണ് നൃത്തം എന്ന് പറയുന്നത് നൃത്തം എന്ന് പറയുന്നത് കലാരൂപമാണ് നൃത്തത്തെ സംബന്ധിച്ചിട്ട് നൃത്തത്തിൻ്റെ ഡ്രെസ്സിംഗും മേക്കപ്പും എല്ലാം ഒരു വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് പറഞ്ഞെങ്കിൽ വെറൈറ്റി എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് സാരി അല്ല പാവാട അല്ല അങ്ങനെ അല്ല ഒരു വേറെ തന്നെ ഒരു ഡ്രസ്സാണ് പിന്നേ പിന്നെ അവരുടെ മേക്കപ്പും അങ്ങനെ തന്നെയാണ് ഒരു വേറെ തന്നെ മേക്കപ്പ് ആണ് കുറച്ച് വെറൈറ്റി ആണ് സാധാരണ ആൾക്കാരേക്കാളും വെറൈറ്റി ആയിട്ടാണ് അവർ നൃത്തത്തിൽ കളിക്കുന്നത് നൃത്തത്തിൻ്റെ ഓരോ ചുവടുകളും ഓരോ കൈയ്യും കാലുമെല്ലാം അനങ്ങുന്നതെല്ലാം വളരെ വ്യത്യസ്തമാണ് വളരേ വെറൈറ്റിയാണ് ഒപ്പന പിന്നെ കാണുന്നത് ഒപ്പനയാണ് ഒപ്പന എന്ന് പറയുന്നത് എല്ലാം അറബി അറബികളാണ് അധികം കളിക്കാറ് പക്ഷേ നാട്ടിലാണ് കേരളത്തിലത്തെ ആൾ കേരളത്തിലെ ആൾക്കാർ മാത്രമാണ് ഈ ഒപ്പന കളിക്കുന്നത് ഒപ്പന എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണ് ചെറുപ്പത്തിലെല്ലാം ഞാൻ കളിച്ചിട്ടുണ്ടാവും കുറേ ഒപ്പന ഒപ്പന കുറേ കളിച്ചിട്ടുണ്ട് പിന്നെ നൃത്തം കളിക്കാൻ അറിയില്ല എങ്ങനെ കണ്ടെങ്കിലും എത്ര കളിച്ചെങ്കിലും നൃത്തം നേരെ ആവുന്നില്ല കളിച്ചെങ്കിൽ പിന്നെ കണ്ടേങ്കിൽ കാണുമ്പോഴൊക്കെ കളിക്കനെലാം തോന്നും പക്ഷെ കളിച്ച് കളിച്ച് കളിച്ചിട്ടാണ് കുറേ ആൾക്കാർ പ്രാക്ടീസ് ആയിട്ടാണ് കുറേ ആൾക്കാർ നേരെ കളിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കൊന്നും നൃത്തം കളിക്കാനേ അറിയില്ല കളിച്ച് അങ്ങനെ നേരാകേല എൻ്റെ ഒപ്പന അങ്ങനെ തന്നെ ഒപ്പന കളിച്ചിട്ട് കളിച്ച് കളിച്ച് കളിച്ചിട്ട് അതിൽ തെറ്റിയത് കൊണ്ടാണ് എന്നോറ് പുറത്താക്കിയത് പക്ഷെ ഒപ്പന എന്ന് പറയുന്നത് നല്ലതാണ് നല്ലത് ആ ഒരു ടൈം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്രെൺഷിപ്പ് ആ ഒപ്പന കളിക്കുമ്പോൾ കുറെ ടീമായിട്ടായിരിക്കും കളിക്കുന്നത് പക്ഷെ അവരുടെ ഫ്രെൺഷിപ്പ് എന്ന് പറയുന്നത് ഒക്കതന്നെ കളിക്കാം ഒക്കതന്നെ ചിരിക്കാം ഓറ് ചിരിച്ചിട്ടും അവിടെ ഒരു ഫ്രെണ്ട്ഷിപ്പിൻ്റെ ചങ്ങാതിമാരെ കൂട്ട് മിണ്ടാനുണ്ട് കാരണം എന്തേലെങ്കി ഇപ്പം ഫ്രെൺഷിപ്പ് ഇപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളില്ലെ ഇപ്പോൾ ഒപ്പന കളിക്കുമ്പഴേക്ക് കുറേ കളിക്കാനും ചിരിക്കാനെല്ലാം ഉണ്ടാവും കരയുന്ന പോലെ തന്നെ എല്ലാം ഇങ്ങനെ ഒക്കെ തിന്നണ്ടതെല്ലാം വരും ഇരിക്കുമ്പോഴേക്കെല്ലാം ഒക്കെ ഫുഡ് കഴിക്കാനിരിക്കണം അങ്ങനെ എല്ലാം വരെ അപ്പം ഈ ചങ്ങാതിമാരെല്ലാം കുറെ ക്രിയേറ്റ് ആകുന്നുണ്ട് അവിടെ ഒപ്പനയിലെന്ന് പറയുന്നത് ആൾക്കാർ തന്നെയാണ് ടീമാണ് കുറേ എത്ര വേണമെങ്കിലും ആകാം നാലിനേക്കാൾ ആറാണ് ഏകദേശം ആറാൾക്കാരാണ് ആറിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കളിക്കുന്നത് തന്നെയാണ് ഒപ്പന ഒപ്പന ആറും ആറിൽ കൂട്തൽ എത്ര ആൾക്ക് വേണമെങ്കിലും ഒപ്പന കളിക്കാം അതിനൊരു ഇതുമില്ല അതുമല്ല വല്ല ഈ ഒപ്പന പഠിപ്പിച്ച് തരുന്ന ആൾക്കാരുണ്ടല്ലൊ അവർ ഭയങ്കര അവർക്ക് ഭയങ്കര ഇപ്പം നമ്മൾക്ക് പഠിപ്പിച്ചു തരുമ്പം അത് മനസ്സിലായില്ലെങ്കിൽ ആദില് ആദില് പഠിപ്പിച്ച് തരണം അവർക്ക് അതെല്ലാം ഭയങ്കര കഷ്ടപ്പാടാണ് ഇത്ര എല്ലാം കഷ്ടപ്പെട്ടിട്ട് അവർ പഠിപ്പിച്ച് തരും തരുന്നതാണ് ഈ ഒപ്പന എന്ന് പറയുന്നത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഭയങ്കര അവർക്ക് കൈ വേദന കാല് വേദന അങ്ങനെ എന്തെല്ലാം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ അതൊന്നും അവർ നോക്കുന്നില്ല നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ നമ്മൾ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ആക്കി തരുന്നുണ്ട്

പക്ഷെ പിരികം കുറച്ച് മുട്ടിക്കലാണ് പണ്ടത്തെ ആൾക്കാരെല്ലാം മുട്ടിക്കുന്നത് പോലെ പിരികം മുട്ടിയിട്ടിറ്റാണ് ആക്കുന്നത് പിന്നെ അവരുടെ ഒരു ഇതാണ് ലൈനർ എല്ലാം വിട്ടിട്ട് നല്ല പാങ്ങിൽ ലൈനർ ഇടാം പിന്നെ പുരികത്തിൻ്റെ മുകളിലേക്ക് വൈറ്റ് കുത്തായിട്ട് എല്ലാം ഇടാം ഈ ഒപ്പന എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ഏകദേശം എൻ്റെ എല്ലാ ചെറുപ്പത്തിലെ ആശയാണ് ഈ ഒപ്പന കളികണം ഒപ്പന കളിക്കണം പക്ഷേ നല്ല കഴിവുള്ള ആൾക്കാർക്ക് മാത്രേ കളിക്കാൻ കഴിയുന്നു എന്നില്ല എല്ലാവർക്കും കളിക്കാം പക്ഷേ തെറ്റും ഇത് ആൾക്കാറായിട്ട് കളിക്കുന്നത് കൊണ്ട് ത്താന്നെ ഒരാളത് തെറ്റിയെങ്കിൽ എല്ലാവരെയും തെറ്റും അത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ട് കളിക്കേണ്ടത് എല്ലാം വരുന്നത് ഇപ്പം ഒരാൾ കളിക്കുമ്പോഴേക്ക് തെറ്റിയെങ്കിൽ തന്നെ അയടെ ഫുള്ളും തെറ്റി എല്ലാവരെ കളിയും തെറ്റി അതുകൊണ്ട് ടീമായിട്ട് കളിക്കുമ്പോൾ കുറച്ചെല്ലാം ശ്രദ്ധിക്കാനുണ്ട്